ഹലോ ലൂയിസ് കിച്ചണല്ലേ ഇന്നലെ ഒരു അഞ്ചു മണിയായപ്പോൾ ഞങ്ങൾ ഒരു ഓർഡർ പ്ലെസ്സ് ചെയ്തിരുന്നു ഫ്രൈഡ്രൈസും ചിക്കൻ ചില്ലിയും അങ്ങനെ കുറച്ച് ഭക്ഷണവിഭവങ്ങൾ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ എന്തുകൊണ്ടെന്ന് അറിയില്ല നിങ്ങൾ അത് കൃത്യസമയത്ത് ഞങ്ങൾക്ക് ഡെലിവർ ചെയ്തില്ല ഏകദേശം ഒന്നരവർഷക്കാലത്തോളം ആയി എന്തൊരു ഭക്ഷണം ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ റസ്റ്റോറന്റിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് പക്ഷേ ഇന്നലെ നിങ്ങളുടെ പ്രവർത്തി അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ കാലതാമസം ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അതിഥികൾ വന്നപ്പോൾ കൃത്യസമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പാൻ കഴിഞ്ഞില്ല അത് നിങ്ങൾ ഭക്ഷണം കൊണ്ടുവരാൻ കാലതാമസം കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിളമ്പാൻ കഴിയാതെ പോയത് അപ്പം അതിൻ്റെ കാരണം ഒന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമോ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം വൈകി ഡെലിവറി ചെയ്തത് അതിൻ്റെ റീസൺ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ